ഹലോ ഇത് ഡോക്ടറല്ലായിരുന്നോ ഞാൻ ഫുഡ്പ്പോയ് എനിക്ക് വയറുവേദനയും ശർദി ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വിളിച്ചതാണ് തുടങ്ങിയിട്ട് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതായിരുന്നു

ആ വ ചെറുതായിട്ട് ഇല്ല ഹോസ്പ്പിറ്റലില് കാണിച്ചിട്ടില്ലായിരുന്നു ഇല്ല ഇല്ല ടാബ്ലെറ്റൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ആ ശർദീ കണ്ടിന്യുവസായിട്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ശർദിയാണ് ഭയങ്കരമായിട്ട് ഇന്നലെ ഫിലിമിന് പോയപ്പോൾ ഒന്ന് പുറത്ത് നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു ആ അങ്ങനെ ഷവർമേ അങ്ങനത്തെക്കുള്ള കാര്യങ്ങളായിരുന്നു കഴിച്ചത്

ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ആ ഇല്ല ആ അതെ അതെ ഞാൻ നോ ആ നാളെ ഫ്രീ ആയിരിക്കും ഞാൻ വന്നേക്കാം ആ ഓക്കെ

ആ ഒ ആ ആ ഉം ആ ആ ആ ഈ നമ്പറില് അയച്ച് തന്നാൽ മതി ആ ഓക്കെ എന്ന ആ ഓക്കെ താങ്ക് യു ആ ഓക്കെ ശരി